നവധ നവജാത ശിശുക്കളെ നമ്മള് വളരെ വൃത്തിയുള്ള അന്തരീക്ഷത്തില് വേണം വളർത്തിയെടുക്കാൻ വേണ്ടീട്ട് കാരണം അവർക്ക് പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും അപ്പോൾ അണുക്കള് രോഗാണുക്കള് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇപ്പത്തെ നമ്മുടെ ആധുനിക യുഗത്തിലെ അച്ഛനമ്മമാരായാലും എല്ലാവരും വളരെ നല്ല വൃത്തിയിലാണ് കുട്ടികളെ പരിപാലിക്കുന്നത് കാരണം പുറമേന്നുള്ള ആൾക്കാരെയൊക്കെ കൈ കഴുകിയതിന് ശേഷം മാത്രമെ കുട്ടീനെ എടുക്കാൻ അനുവദിക്കുന്നുള്ളു അതേ മാതിരി എന്തെങ്കിലും അസുഖമുണ്ടെങ്കില് ഇവര് തന്നെ ഫേസ് മാസ്ക്കോ അതൊക്കെ ധരിച്ചാൽ മാത്രമേ കുട്ടീനെ എടുക്കുന്നുള്ളു അങ്ങനെയൊക്കെ നമുക്ക് കുറെ രീതിയില് കുട്ടികൾക്ക് അസുഖം ബാധിക്കാതിരിക്കുവാനും കുട്ടികളെ വൃത്തിയുള്ള അന്തരീക്ഷത്തില് പരിപാലിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ഇതൊക്കെ ചെയ്താൽ തന്നെ പരമാവധി കുട്ടികൾക്ക് അസുഖം വരില്ല കാരണം കുട്ടികളായിട്ട് പുറത്തുള്ളവരുമായിട്ട് അധികം കുട്ടികള് തൊടാനോ അവരെ ഉമ്മ കൊടുക്കാനോ അങ്ങനൊന്നും നമ്മളിപ്പം ഇപ്പഴത്തെ ഈ സാഹചര്യത്തില് അനുവദിക്കുന്നില്ല ഇപ്പം കുറെ ഇപ്പത്ത പകരുന്ന രോഗങ്ങള് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ കുട്ടികളെ പരമാവധി രോഗമുക്തരാക്കാൻ സാധിക്കും